ഇപ്പോൾ നമ്മുടെ വാർത്ത ഇത് നോക്കുവാണ് എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അങ്ങനെ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതില് ഒരു വാർത്ത കേട്ടുകഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം മാത്രമേ എന്താ പറയുക ഒറിജിനൽ ആയിട്ടുണ്ടാവുള്ളൂ എന്നാൽ ബാക്കിയുള്ളതിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ബാക്കിയവര് കൈയിൽ നിന്ന് ഇട്ടതും പിന്നെ അവര് കേട്ടറിഞ്ഞത് അങ്ങനത്തെ ചില ഇതായിരിക്കും അതില് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അത് അതേപോലെ തന്നെ ഇപ്പോൾ അത് ഏത് സിനിമ മേഖലയായാലും സ്പോർട്സ് മേഖല സ്പോർട്സ് മേഖല എന്ന് അല്ല ഏത് മേഖലയായാലും അവര് അവരുടെ ടിആർപ്പി റേറ്റിങ്ങും അതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ചാനലിനെ മുന്നോട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനലുകാര് അവരുടേതായ രീതിയിലുള്ള ഓരോ വാർത്തകള് ഇപ്പോൾ ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ ചില രീതിയിലുള്ള വാർത്തകള് സ്വയം അവര് പുറപ്പെടുവിക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി വിടുക വാർത്തകൾ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടുക അങ്ങനത്തെ കാര്യങ്ങള് ആ അത് ഇപ്പോൾ പല രീതിയിലും നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ വ്യാജവാർത്തകള് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയാലും ഓൺലൈൻ മീഡിയ സിമ്മന്തികളിൽ ആയാലും എന്താ പറയുക ഈ സായാഹ്ന പത്രങ്ങളിൽ ആയാലും ഏതിൽ നോക്കുവാണെങ്കിലും വ്യജവാർത്തകള് നമുക്ക് കുറയാതെയും കാണാൻ പറ്റും ഏതാണ് നല്ലത് ഏതാണ് പൊട്ടാ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് ഇപ്പോൾ അപ്പോൾ പണ്ടത്തെ ഒക്കെ വെച്ച് നോക്കുവാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വാർത്ത കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരാളോട് പോയി പറയാൻ ഉള്ള ഒരു മനസ്സോ അല്ലെങ്കിൽ പറ പറഞ്ഞാൽ അത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ എന്നുള്ള ഒരു പേടിയാണ് അങ്ങനത്തെ ആ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്